ഹലോ ആ പോലീസ് സ്റ്റേഷൻ അതെ അതെ ആരാണ് വിളിക്കുന്നത് ആ

എന്ന് എന്ന് എന്നാണ് കംപ്ലയിൻറ് എന്നാണ് എന്നാണ് കംപ്ലയിൻറ് കൊടുത്തത് ആണെന്നേ അതെന്നാൽ കംപ്ലയിൻറ് രസീത് വല്ലതും കിട്ടിയിരുന്നോ ആ ഞാനൊന്ന് ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ചെയ്തിട്ട് പറയാം ആ അതെ നിങ്ങളുടെ ചെറിയ ബാഗും അതിനകത്ത് മൊബൈലും പൈസയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലയിൻറ് ആണ് അതാണോ ആ അതെയോ അത് അതെയോ ഒരു കറുത്ത ബാഗ് ആണെന്നൊക്കെ എഴ് ആ അതേ അതിനെ കുറിച്ച് ഇതുവരെ നമുക്ക് ഇൻഫോർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല എന്നാൽ വേറെ ഒരു കേസ് ഇവിടെത്തന്നെ വെച്ചിട്ട് ആരുടെയോ ഒരു ബാഗേജ് നഷ്ടപ്പെട്ടു എന്നും ആ ആളിനെ കുറിച്ച് അത് മോഷ്ടിച്ച ആളിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇവിടെ ഒരു അറിയിപ്പ് ഉണ്ട് അപ്പം ആ ആളിനെ അന്വേഷി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ് ഒരുപക്ഷേ അയാൾ തന്നെയാകാം ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് ഊഹിക്കുകയാണ് അപ്പോൾ ആ ആ ഉണ്ട് എല്ലാം എഴുതി എല്ലാം എഴുതിയിട്ടുണ്ട് എല്ലാം ആ അതിൻ്റെ ഫോൺ ലോക്ക് ചെയ്തിരിക്കോ ഫോൺ ലോക്ക് ചെയ്തിരിക്കുവല്ലേ ഫോൺ ലോക്ക് ആ ലോക്ക് ചെയ്താണ് ഓക്കെ അതിനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുവാണെങ്കിലേ ആ വിഷയം ടെലിഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടോ മറ്റൊരു ഇതല്ലാതെ നിങ്ങളുടെ ഫോൺ അല്ലാതെ മറ്റേതെങ്കിലും ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ആ ഓക്കെ ആ ഓക്കെ ആ നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുവാണെങ്കിലേ വിളി അങ്ങോട്ട് വിളിക്കാം ഇതിനിടയ്ക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ

ആ അന്വേഷിക്കാം ഇതിനിടയ്ക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ എന്തെങ്കിലുമൊക്കെ പ ആ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ ആ ഞങ്ങൾ ഇവിടുന്നേ ഇവിടുന്ന് ഇവിടുന്നേ രണ്ടുമൂന്ന് പരാതികൾ സൈബർ സെല്ലിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കൂടെ ഒരു പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം നിങ്ങളുടെ ഇത് പോയിട്ടുണ്ടോ എന്ന് ആ ആ ആ ഇപ്പോഴേ ആ ചെക്ക് ചെയ്തു നിങ്ങളുടെ നിങ്ങളുടെ പരാതി ഞാൻ സൈബർ സെല്ലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും പിടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ത് വിവരം കിട്ടിയാലും നിങ്ങൾക്ക് ആ ഇത് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാം വിളിക്കുമ്പം നിങ്ങൾ വരണം വരുമ്പം നിങ്ങളുടെ ഐഡൻറിഫിക്കേഷന് വേണ്ടിയുള്ള ആധാറോ മറ്റ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡോ എന്തെങ്കിലും കൊണ്ടുവരണം അ ആ ഓക്കെ ഈ ഇത് മോഷ്ടിച്ച മോഷ്ടിച്ച ആളിനെ പിടികിട്ടുന്നെങ്കൽ ഇത് കേസ് ഫോർവേഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടോ അതോ നിങ്ങളുടെ സാധനങ്ങൾ കിട്ടിയാൽ ആ അതെ ആ ഓക്കെ അതേ ഏതെങ്കിലും കാരണവശാൽ ഇവരെ പിടികിട്ടിയിട്ട് മോഷ്ടിച്ച ആളിനെ നമുക്ക് നമ്മുടെ കസ്റ്റഡിയിൽ വരികയാണെങ്കിൽ ഒരു കേസ് ഫോർവേഡ് ചെയ്ത് ഇത് കൊണ്ടു പോവാനായിട്ട് താൽപ്പര്യമുണ്ടോ അതോ അതോ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട സാധനം കിട്ടിയാൽ മതിയോ പ്രത്യേകിച്ച് കേസ് ഒന്നും പോവണമെന്നില്ല അപ്പോഴത്തെ ആ ഓക്കെ ആ ആ ഓക്കെ എന്തായാലും ഇന്ന് വൈകിട്ടേ വൈകിട്ട് ഒന്നും കൂടെ വിളിക്ക് വിളിച്ചിട്ട് നമുക്ക് എന്തെന്നാ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അത് അതിനിടയ്ക്ക് നിങ്ങൾക്ക് പരിചയമുള്ള പരിചയം സാധ്യത ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിവരം ഒന്ന് പറയണം ആൾക്കാരോട് ഇങ്ങനെ നഷ്ടപ്പെട്ടു ന ആ ശരി